എനിക്ക് മെയിനായിട്ട് താത്പര്യം തോന്നിയ ഒരു വാർത്തയെക്കുറിച്ച് വേണമെങ്കിൽ ഞാൻ പറയാം അത് ഇപ്പോഴൊന്നുമുള്ളതല്ല രണ്ട് വർഷം മുൻപേ ആണ് അതായത് നമ്മളുടെ കൊറോണ കാലമില്ലേ അന്നത്തെ ആ ഒരു ടൈമിലുള്ള പിന്നെ വാർത്തയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാരണമെന്നു വെച്ചാൽ അന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി ഷൈലജ മാഡം ആയിരുന്നു പിന്നെ മുഖ്യമന്ത്രി നമ്മുടെ പിണറായിവിജയനായിരുന്നു അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പേരുടെയും അതായത് ആ ടൈമിലുള്ള അവരുടെ സഹകരണമെന്നു പറഞ്ഞാൽ അത് ഭയങ്കരം തന്നെയായിരുന്നു മെയിനായിട്ട് നമുക്ക് ഷൈലജ മാഡത്തിനെ പറയാം അതുകൊണ്ടുതന്നെ ഇപ്പോഴും ഷൈലജ മാഡം അവരുടെ അവിടെ എം എൽ എ ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതായത് അത്രക്കും നല്ല ഒരു ആരോഗ്യമന്ത്രി വേറെ ഇനി ഇല്ല ഇപ്പോഴത്തെ വീണ ജോർജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷൈലജ മാമിൻ്റത്ര എത്തില്ല അപ്പോഴെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ടൈമിൽ അതായത് കൊറോണയെ കുറേ അവർ ഇതാക്കിയതും വാർത്തയൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കാണുമായിരുന്നു കാരണമെന്നു വെച്ചിട്ടുണ്ടേ അവരുടെ ഒരു ഇടപെടൽ കൊണ്ട് കുറേ പേരുടെ ജീവനൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട് അപ്പോഴെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷൈലജ മാമിനെ മാഡത്തിനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആ ടൈമിലുള്ള ആ ഒരു വാർത്തയെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു